എന്തൊക്കെ വ്യവസായങ്ങളാണ് ഗ്രാമത്തിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റെ ഈ ഗ്രാമത്തിലൊക്കെ ഒരുപാട് വ്യവസായങ്ങളുണ്ട് പിന്നെ വാഴ കൃഷിയുണ്ട് പിന്നെ വാഴ കൃഷിയുണ്ട് നെൽ കൃഷിയുണ്ട് പിന്നെ ചേന ചേമ്പ് കപ്പ മഞ്ഞൾ ഇഞ്ചി പിന്നെ ഗോതമ്പ് ഗോതമ്പ് കൃഷിയക്കെ ഇവിടെ വളരെ കുറവാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൃഷികൾ പച്ചക്കറി കൃഷികൾ തക്കാളി പയറ് വാഴ അങ്ങനെയുള്ള ഒരുപാടുണ്ട് ഇപ്പോഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലാൾക്കാരും ഈ ടെറസിൻ്റെ മുകളിലുള്ള കൃഷിയൊക്കെയാണ് അതുപോലെ അതായത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വയൽലൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അവള് അവർ വളമൊക്കെ അടിച്ച് അങ്ങനത്തെ ഫുഡൊക്കേ ആയിരിക്കും അപ്പോൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ശരീരത്തിനൊക്കത് കേടാണ് അപ്പോൾ ടെറസിൻറ്റെ മുകളിൽ വെച്ചിട്ട് അവർ അവർക്കായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അതായത് വഴുതന വെണ്ടക്ക തക്കാളി പിന്നെ പയറ് അങ്ങനുള്ളതൊക്കെ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് ഒരുപാട് പേർ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നെല്ല് കാര്യങ്ങളൊന്നും നമുക്കെന്തായാലും അതൊന്നും നടക്കില്ല അത് പോസ്സിബിളല്ല അപ്പം അങ്ങനത്തെ കൃഷികളൊക്കെ നമ്മുക്കിവടെ നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ടെറസിൻ്റെ മുകളിൽ എല്ലാവരും കൃഷികൾ ഉണ്ടാക്കുന്നുണ്ട്